നീന്തൽ ക്രിക്കറ്റ് പദയാത്ര തുടങ്ങിയ ഇതിലൊക്കെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഓരോ ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ ആണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ ആക്ടിവിറ്റീസ് സ്പോർട്സ് അങ്ങനെ സ്പോർട്സിന് വേറെ ഞമ്മള് വേറെ ഒരു ജില്ലയിൽ പോയി കളിക്കുന്നതും അങ്ങനത്തെ ഒരു ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്